കേരളത്തിലെ നിയമവാഴ്ചയും മനുഷ്യാവകാശവും സംരക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് ഇവിടെ നിലവിലുള്ള ഭരണഘടന വ്യവസ്ഥ പ്രകാരം നമുക്ക് നിയമ വാഴ്ച്ച സംരക്ഷിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും മറ്റു മേഖലകളെ പോലെ തന്നെ നിയമവാഴ്ച്ച സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഭരണഘടനയുടെ വലിയ സംരക്ഷണം നമുക്ക് ലഭിക്കാറുണ്ട് അതേപോലെ തന്നെ ജുഡീഷ്യൽ ജുഡീഷ്യറിയുടെ ഒരു വലിയ സപ്പോർട്ട് ഈ കേരളത്തിലെ നിയമവാഴ്ച്ച സംരക്ഷിക്കുന്നതിൽ വലിയ പങ്കു വഹിക്കുന്നു അതേപോലെ നമുക്ക് മനുഷ്യവകാശ കമ്മീഷനുകൾ ഓരോ കേസിലും ഇവിടെ പല പല കേസുകളിലും മനുഷ്യവകാശ കമ്മീഷനുകളുടെ പ്രവർത്തനങ്ങൾ സ്തുത്യർഹമാണ് അവർ തുള്ളിയതൊക്കെയായിട്ട് പല മേഖലകളിലും ശ്രമിക്കുന്നുണ്ട് അത അതേപോലെ തന്നെ ഭരണഘടന നമുക്ക് സമത്വത്തിനുള്ള അവകാശം തരുന്നു നീതിക്ക് വേണ്ടിയുള്ള അവകാശം തരുന്നു ഇക്വാളിറ്റിക്ക് വേണ്ടിയുള്ള അവകാശം തരുന്നു ഇങ്ങനെ നിയമവാഴ്ച സംംരക്ഷിക്കുന്നതിൽ മനുഷ്യൻ്റെ സംരക്ഷണം ഉറപ്പാക്കുന്നതിൽ ഭരണഘടന വ്യവസ്ഥകൾ വലിയ പങ്ക് വഹിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു സംശയവുമില്ല കേരളത്തെ സംബന്ധിച്ചു കേരളത്തിലെ രാഷ്ട്രീയ വ്യവസ്ഥ അവർ എങ്ങനെയൊക്കെ പെരുമാറിയായാലും നിയമ വാഴ്ച്ചയുടെ വലിയ സംരക്ഷകരായിട്ട് ഭരണഘടനയും ജുഡീഷ്യറിയും വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എപ്പോഴൊക്കെ നിയമ വാഴ്ച്ചയ്ക്ക് ഭംഗം വരുന്നോ കോട്ടം വരുന്നോ അപ്പോഴൊക്കെ ജുഡീഷ്യറിയും ഭരണഘടനയും നമ്മുടെ പങ്കാളികളായി ഇതിൻ്റെ വലിയ കാവൽക്കാരായി നിക്കും നമ്മുടെ നിയമ വാഴ്ച്ച ഉറപ്പാക്കുന്ന വലിയ പരിപാടികൾ അതായത് രാജ്യത്ത് അല്ലെങ്കിൽ കേരളത്തിൽ വലിയ രീതിയിലുള്ള സാമൂഹ്യമായ മാറ്റങ്ങൾക്ക് വേണ്ടിയൊക്കെയുള്ള മുറവിളികളൊക്കെ ഉണ്ടാകുമ്പോൾ ജനാധിപത്യത്തെ ധംസിക്കുന്ന നടപടികൾ ഉണ്ടാവുമ്പോൾ ജുഡീഷ്യറിയുടെ പങ്ക് വളരെ വിലപ്പെട്ടതാണ് ഇന്ത്യ ഇന്ത്യൻ ജുഡീഷ്യറി ഇന്ത്യൻ ഭരണഘടന ഇതൊക്കെ മനുഷ്യവകാശ സംരക്ഷണമാണ് അതിൻ്റെ ഏറ്റവും കാതലായ ഒരു ഉറപ്പ് നമുക്ക് തരുന്നത് നമുക്കറിയാം മനുഷ്യാവകാശം പലതരത്തിലുള്ള മനുഷ്യയാവകാശ കമീഷനുകൾ ഉണ്ട് നിലവിലുണ്ട് ഇതൊക്കെ തന്നെ ഇതുപോലെ സ്തുത്യർഹമായ സേവനം നടത്തുകയും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അതായത് നിയമ വാഴ്ച്ച സംരക്ഷിക്കുന്നതിൽ ഇവരുടെയൊക്കെ പങ്ക് വളരെ വിലപ്പെട്ടതുമാണ് കേരളത്തിലെ രാഷ്ട്രീയ വ്യവസ്ഥ എങ്ങനെയാണ് നിയമവാഴ്ച്ചയെ മനുഷ്യവകാശ സംരക്ഷണം ഉറപ്പാക്കുന്നതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഭരണഘടനയും ജുഡീഷ്യറിയും തന്നെയാണ് ഇതിൻ്റെ മുഖ്യ വക്താക്കളെന്ന് പറയാനായിട്ട് സാധിക്കും ഇവിടെയാണ് നമുക്ക് നിലവിലുള്ള സംവിധാനങ്ങളിലൊക്കെ വലിയ പ്രചാരകരായിട്ട് മാറാനായിട്ട് സാധിക്കുന്നത് എങ്ങനെയാണ് കേരളത്തിലെ ഈ ഒരു നിയമ വാഴ്ചയുടെ നിയമവാഴ്ച്ച ഏതൊക്കെ അവസരത്തിൽ പരാജയപ്പെടുമ്പോഴും ഏതൊക്കെ അവസരത്തിൽ പരാജയപ്പെട്ടാലും അതിനെയൊക്കെ സംരക്ഷിക്കാൻ അതിനെയൊക്കെ ചേർത്ത് നിന്ന് കൊണ്ട് തോൽപ്പിക്കാൻ ഇവിടുത്തെ ജുഡീഷ്യറിക്കും ഭരണഘടനക്കും സ്വാധിച്ചിട്ടുമില്ല മനുഷ്യവകാശ കമീഷനുകളെ മനുഷ്യൻ്റെ നിയമപരമായിട്ടുള്ള സംരക്ഷണവും കൂടി ഉറപ്പാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കാറുണ്ട് കേരളത്തിൻ്റെ ആ ഒരു രാഷ്ട്രീയ വ്യവസ്ഥ പല രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ മാറി മാറി ഭരിക്കുന്നു അവരുടെയൊക്കെ ആൾക്കാരെ പല മേഖലയിലുള്ളവർ തിരിക കയറ്റാനൊക്കെ ശ്രമിക്കുമ്പോഴൊക്കെ ഒരു ജുഡീഷ്യറിയുടെ അതായത് ഒരു ജുഡീഷ്യറിയുടെ തീർച്ചയായിട്ടുള്ള കൈകടത്തലുകൾ ഉണ്ടാകാറുണ്ട് ഇതൊക്കെ തന്നെ കേരളത്തെ സംബന്ധിച്ചെടുത്തോളം കേരളത്തിലെ രാഷ്ട്രീയ വ്യവസ്ഥ നമുക്ക് എപ്പോഴും മനുഷ്യൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ളതും മനുഷ്യന് മനുഷ്യന് ഉപകാരപ്രദമായിട്ടുള്ളതാണെന്നുമുള്ള കാര്യത്തിൽ വളരെ ഇന്ത്യൻ നിയമവ്യവസ്ഥ ചെയ്യുന്ന സേവനങ്ങൾ സ്തുത്യർഹമാണെന്നുള്ള കാര്യത്തിലും ഒരു സംശയമില്ല പീഠനങ്ങളന്നും ഒക്കെയുള്ള ഒത്തിരി പീഠനങ്ങൾ സമൂഹത്തിൽ നടക്കുമ്പോഴൊക്കെ ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ മനുഷ്യ സംരക്ഷിക്കാനായിട്ട് കാണിക്കുന്ന ആ ഒരു വലിയ പങ്ക് തീർച്ചയായിട്ടും ഇത് ഈ ഒരു അവസരത്തിൽ നമുക്ക് മുഷ്യവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ നിയമവാഴ്ച ഇവിടെ നിലനിൽക്കുന്നതിലൊക്കെ ഇന്ത്യൻ ഭരണഘടനയും ജുഡീഷ്യറിയും ചെയ്യുന്ന വലിയ പങ്ക് ഇത് എപ്പോഴും നമുക്ക് മറ്റ് അവസരങ്ങളിൽ കാണാത്ത ഒരു വലിയ പങ്ക് ഇതിൽ കാണാൻ കഴിയുമെന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ഈ അവസരത്തിൽ വളരെ സ്തുത്യർഹമാണ് അതേപോലെ നിയമ വഴ്ച്ചയുടെ വലിയ സംരക്ഷകരായിട്ട് ഭരണഘടന മാറുന്നു ഇതൊക്കെ ഇതുപോലെ തന്നെ ജുഡീഷ്യൽ റിവ്യൂ ഉണ്ട് ജുഡീഷ്യൽ അവലോകനം ഉണ്ട് ഇതൊക്കെ ഈ മേഖലകളെ കൂടുതൽ കേരളത്തിലെ രാഷ്ട്രീയ വ്യവസ്ഥ ഇവർക്ക് പരിപാലിക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളതും ഇത്തരത്തിൽ വളരെ ശ്രദ്ധേയമാണ് അതേപോലെ തന്നെ കേരളത്തിലെ രാഷ്ട്രീയ വ്യവസ്ഥ എങ്ങനെയാണ് നിയവാഴ്ച്ച മനുഷ്യ സംരക്ഷണവും ഉറപ്പാക്കുന്നതെന്ന് ചോദിച്ചാൽ നിയമത്തിൻ്റെ വലിയ പിന്തുണ ഈ മേഖലയിലൊക്കെ ഇവർക്ക് ലഭിക്കുന്നു എന്നുള്ളത് വലിയ എടുത്ത പറയേണ്ടതാണ് ജുഡീഷ്യൽ അവലോകനം പലപ്പോഴും പല കേസുകളെ സംഭവിച്ചതൊക്കെ നാട്ടിൽ അരങ്ങേറുന്ന ചില ദുഷ്പ്രവർത്തനങ്ങൾക്ക് എതിരെ നിയമ വാഴ്ച എപ്പോഴും കടിഞ്ഞാൺ ഇടാറുണ്ട് ഇത് വലിയ ഒരു തുടക്കമാകും കേളത്തിലെ രാഷ്ട്രീയ വ്യവസ്ഥ ഈ മനുഷ്യാവകാശ സംരക്ഷണം ഉറപ്പാക്കുന്നതിലൊക്കെ വലിയ പങ്കുവഹിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല തീർച്ചയായിട്ടും ജുഡീഷ്യറിയുടെ ഒരു വലിയ പങ്ക് അതേപോലെ തന്നെ ഭരണഘടന വ്യവസ്ഥകള ഇതൊക്കെ നമുക്ക് തരുന്നു